ബ്രിട്ടീഷുകാര്ക്ക് എതിരെ മഹാത്മാഗാന്ധി ചെയ്ത ഒട്ടനവധി സമരങ്ങളുണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് നമുക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന ഉപ്പ് നാം ഉണ്ടാക്കാന് പാടില്ല അത് ബ്രിട്ടീഷ്കാര് ഇഗ്ളണ്ടിലുണ്ടാക്കുന്ന ഉപ്പ് മാത്രമേ നിങ്ങളുപയോഗിക്കാന് പാടുള്ളൂ എന്നുള്ള ആ നിബന്ധനകളാണ് നിബന്ധനകള് നിയമങ്ങള് കാറ്റില് പറത്തിക്കൊണ്ട് അദ്ദേഹം സമര രൂപേണ അദ്ദേഹത്തിന്റെ അനുനായികളുമൊത്ത് ശിഷ്യരുമൊത്ത് കടല് തീരത്ത് ചെന്ന് ഉപ്പ് ഉണ്ടാക്കി ആ നിയമ ലംഘനം നടത്തി അങ്ങനെ അദ്ദേഹം ജയിൽ വാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അതെ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയല്ല ജീവിച്ചത് ഭാരതാംബക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഭാരതത്തിലെ ഓരോ മനുഷ്യനും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അത് മാത്രമല്ല ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെന്ന് പറഞ്ഞു അര്ദ്ധ നഗ്നനായി ഫക്കീറെന്ന് അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കല് തീവണ്ടിയാത്രയ്ക്ക് പോകുന്ന സമയത് കല്ക്കട്ടയില് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തീവണ്ടിയിൽ പുറത്തേക്ക് നോക്കിയപ്പോള് നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ ഒരു ഒരു തുണികൊണ്ട് ഒരുഭാഗം അലക്കി അലക്കി അത് ഉടുത്ത ശേഷം മറുഭാഗം അലയ്ക്കുന്നു ഈ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സലിയുകയും അദ്ദേഹം ഇന്ത്യയുടെ വേദന മനസ്സിലാക്കി അദ്ദേഹം തന്റെ മേല് മുണ്ട് എറിഞ്ഞുകൊടുത്തു അതിനുശേഷം മരിക്കുന്നതുവരെ അദ്ദേഹം എന്റെ ജനങ്ങള്ക്ക് ഉടുതുണിയും മറുതുണിയും ആയതിന് ശേഷം മാത്രമേ ഞാന് മേല്മുണ്ട് ധരിക്കൂ എന്നുള്ള ആ

ആ ആ തത്വം ചിന്തിച്ച് കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ദൃഡപ്രതിജ്ഞ എടുത്തു അത് മരണം വരെ അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു തീര്ച്ചയായിട്ടും ആ സത്യാഗ്രഹം ആണ് നമ്മളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്